ഞാന് ഡാൻസ് റീലുകളാണെങ്കിലും ഷോർട്സ്കളാണെങ്കിലും ഇപ്പം നമ്മള് യൂ ട്യൂബില് ഷോർട്സ്ന്നാണ് പറയുക നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോക്കെന്ന് പറഞ്ഞാൽ റീൽസ് എന്നാണ് പറയുക റീനു റീലുകളിൽ പലതരം അതായത് ഇപ്പം ഡാൻസിങ് എല്ലാം കാണാറുണ്ട് നല്ല രീതിയിലുള്ള ഡാൻസറ് ഡാൻസേർസ് അങ്ങനെ അങ്ങനെ യാണ് നമ്മള് കുറച്ചും കൂടെ എന്താ പറയുക ഫെയിമസ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ റീലുകളിലൂടെയാണ് റീലുകളിലൂടെ കണ്ടിട്ടാണ് അവരെന്തു ചെയ്യുക ഇപ്പോൾ ഏതെങ്കിലും റിയാലിറ്റി ഷോകളിലും അങ്ങനത്തെ കാര്യങ്ങളിൽ ഒക്കെ സെലക്ട് ആകുന്നതും അങ്ങനെയാണ് അപ്പോൾ നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റീലുകളിലൂടെയും ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അവസരം കിട്ടാത്ത കുറേ ആൾക്കാറോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീലുകളിലൂടെ ചെയ്തിട്ട് അതിന്റെ അകത്ത് നിന്ന് പണം നേടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ യൂ ട്യൂബിലാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഡാൻസ് ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ കുടുതലായിട്ടും കാണുന്നു എന്ന് പറഞ്ഞാൽ ഡാൻസ് ഇപ്പം നമുക്ക് ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട് അപ്പോൾ ആ പുള്ളിക്കാരീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണമെന്ന് വെച്ചാല് അവരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഒരു ഭംഗിയാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്